എടാ ജിതിനെ നിങ്ങള് എപ്പഴാണ് വരുന്നത് ആരൊക്കെയാണ് വരുന്നത് മറ്റവരൊക്കെ വിളിച്ചോ ഞാൻ വിളിച്ചിട്ട് രണ്ടാളെ കിട്ടിയിട്ടുള്ളു വിശാഖിനെ കിട്ടി അമലിനെയും കിട്ടി മറ്റവരെ നീ ഒന്ന് വിളിക്കണേ എല്ലാവരും ബന്ധപ്പെട്ടിട്ട് ഒന്നെന്നെ വിളിക്കണേ ഞാൻ കുറെ ദിവസമായി നിങ്ങളെ വിളിക്കണമെന്ന് വിചാരിക്കുന്നു ഇന്ന് റിലീസായ രണ്ട് സിനിമകൾ ഉണ്ട് മോഹൻലാലിൻ്റെ പടം രണ്ടെണ്ണമുണ്ട് എല്ലാം അടിപൊളിയാണ് എന്നാണ് കണ്ട ആളുകൾ പറഞ്ഞത് നല്ല പടം ആണെന്നാണ് പറയുന്നത് നമുക്ക് ഒന്നതിന് പോയാലോ കണ്ട ആളുകളുടെ ഒക്കെ അഭിപ്രായം ചോദിച്ച് അവരെല്ലം പറഞ്ഞ് നല്ല പടമാണ് നമുക്ക് അതിന് പോകാം അല്ലേ മറ്റവരെ ഒന്ന് വിളിക്കണേ എന്തായാലും നമുക്ക് ഇന്ന് പോകാം സിനിമക്ക് കുറെ ആയി ഞാൻ സിനിമ കാണണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നു ഇന്നേതായാലും നമുക്ക് പോകാം ഇന്ന് എല്ലാവർക്കും ഫ്രീ ടൈമല്ലേ രാത്രി പോകാലേ അങ്ങനെ ആണേൽ നമുക്ക് എല്ലാവരും എത്തുന്ന സമയം നോക്കിയിട്ട് സെക്കൻഡ് ഷോയ്ക്ക് പോകാം എല്ലാവർക്കുമുള്ള ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാം ഓക്കേ